ഒഴിവ് സമയങ്ങളിൽ ഞാൻ നൃത്തം ചെയ്യാറുണ്ട് കാരണം നാൻ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം നൃത്തം പഠിക്കുവാൻ വേണ്ടി പോകാറുണ്ട് അതുകൊണ്ടു തന്നെ ഞാൻ ഒഴിവു സമയങ്ങളിൽ കൂടുതൽ സമയം ഞാൻ നൃത്തം ചെയ്യാനാണ് എടുക്കാറ് പിന്നെ ഞാൻ വരയ്ക്കാറുണ്ട് ഞാൻ ചില സമയങ്ങളിൽ എൻ്റെ സമയവും ഓരോ സാഹചര്യമനുസരിച്ചിട്ട് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ വരയ്ക്കാറുണ്ട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് അതേപോലെ തന്നെ കളർ ചെയ്യാറുമുണ്ട് പിന്നെ ഞാൻ ഡാൻസ് ഓരോ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ നൃത്തം അവർ ചെയ്യുന്നത് പോലെ ഞാൻ അനുകരിച്ച് ചെയ്യാറുണ്ട് അതേപോലെ അഭിനയവും ഇഷ്ടമാണ് ഞാൻ ചില ഒഴിവുള്ള സമയങ്ങളിൽ കണ്ണാടി നോക്കിയിട്ട് അഭിനയിക്കുവാനും ശ്രമിക്കാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാനൊരു ബു പുസ്തകത്തിൽ ഞാൻ അത് ചെയ്തു വയ്ക്കാറുണ്ട് ഒഴിവ് സമയങ്ങളിൽ പിന്നെ ഒഴിവ് സമയങ്ങളിൽ വീട്ടു ജോലികൾ ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ അം അമ്മയെ സഹായിക്കാറുണ്ട് പിന്നെ ഒഴിവുസമയങ്ങളിൽ ഞാൻ എനിക്ക് കാർ ഓടിക്കുവാൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കാർ പഠിച്ചിട്ടുള്ളതാണ് അത് ഒന്നുകൂടി ശരിയാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിവ് സമയങ്ങളിൽ കാർ എടുത്തിട്ട് ഒന്ന് ഓടിച്ചു നോക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ഒഴിവ് സമയങ്ങളിൽ പ്രധാനമായും ചെയ്യപ്പെടു ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ അമ്മയെ സഹായിക്കുക എന്ന് പറയുമ്പോൾ ചെടികൾ നടാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയെ സഹായിക്കാറുണ്ട് അതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെറിയ സ ഒഴിവു സമയങ്ങൾ ചെയ്യാറുണ്ട്